ഗ്രാമപ്രദേശങ്ങളിൽ കളികളിൽ ഏർപ്പെടുമ്പോൾ ആളുകൾക്ക് നല്ല കാര്യം തന്നെയാണ് ലഭിക്കുന്നത് ഗ്രാമത്തിലെ എല്ലാവരും ആയിട്ട് ഇടപെടാൻ ഉള്ള ഒരു അവസരമാണ് അത്

നാട്ടിലെ എല്ലാ വ്യക്തികളും ആയിട്ട് ഒരു നല്ല അടുപ്പം തന്നെ ഇതിലൂടെ സൃഷ്ടിക്കാൻ പറ്റുന്നു പിന്നെ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പല രോഗങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ ഉള്ള ഒരു മാർഗ്ഗമാണ് ഈ വ്യായാമം കളികളിലൂടെ ലഭിക്കുന്നത് അതിനാൽ ഒട്ടുമിക്ക എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് സമൂഹത്തിന് വേണ്ടി മറ്റ് ഉപയോഗങ്ങൾ ചീത്ത ഉപയോഗങ്ങൾ കുറക്കാനും ഇതിലൂടെ സാധിക്കുന്നു സാമൂഹിക ഇടപാടുകൾ നല്ല രീതിയിൽ നടത്താൻ ഇതിലൂടെ കഴിയുന്നു എന്ന് മനസ്സിലാക്കാം